മത്സ്യബന്ധനത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ വലുതാണ് ഈ കാലഘട്ടത്തിൽ അതായത് ഇപ്പോൾ ഒരു വല നെയ്യണം എന്നുണ്ടെങ്കിൽ പോലും സ്ത്രീകൾക്കറിയാത്ത പണികളില്ല അവർ നെയ്ത് കൊണ്ട് വരുന്ന വലയാണ് മുക്കുവന്മാർ അത് കൊണ്ടുപോയി മത്സ്യബന്ധനത്തിന് വല വീശാനായിട്ട് ഉപയോഗിക്കുന്നത് വല നെയ്ത്തിലാണെങ്കിൽ പോലും ഇനി ഇപ്പോൾ കൊണ്ടുവരുന്ന മീനുകൾ കച്ചവടം ചെയ്യാനാണെങ്കിലും ലേലത്തിന് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും സ്ത്രീകളുടെ പങ്ക് വളരെ വലിയതാണ്